നമ്മൾ ഒരു മലയാളി ആയതുകൊണ്ട് ജനിച്ചതു മുതൽ മലയാളത്തിൽ തന്നെയാണ് നമ്മൾ കേൾക്കുന്നതും വളരുന്നതും എല്ലാം അങ്കണവാടിയിൽ ചേർത്ത കാലം മുതൽ അമ്മയാണ് മലയാളത്തിൽ അക്ഷരങ്ങൾ എഴുതാൻ പഠിപ്പിച്ചതും വായിക്കാൻ പഠിപ്പിച്ചതും ഒന്നു മുതൽ പഠിച്ചത് ഒരു സർക്കാർ സ്കൂളിലാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അല്ല പഠിച്ചിരുന്നത് അതുകൊണ്ടു തന്നെ എല്ലാ സബ്ജക്റ്റും മലയാളത്തിൽ തന്നെയായിരുന്നു ഇംഗ്ലീഷ് നാലാം ക്ലാസ്സ് മുതലാണ് ഇംഗ്ലീഷ് വന്നിട്ടുള്ളത് എല്ലാ സബ്ജക്റ്റും മലയാളത്തിൽ വായിച്ച് മനസ്സിലാക്കി എഴുതുന്നതു കൊണ്ട് നമ്മൾ അത് പെട്ടെന്ന് മനസ്സിലാക്കി തുടങ്ങി എഴുതാനാണെങ്കിലും വായിക്കാനാണെങ്കിലും മലയാളം നമുക്ക് എളുപ്പമുള്ളൊരു ഭാഷയായി തീർന്നു മലയാളത്തിനോടെന്നും ഒരു വളരെയധികം ഇഷ്ടമുണ്ട് ശ്രേഷ്ഠഭാഷ പദവി ലഭിച്ച ഒരു ഭാഷയാണ് മലയാളം മാത്രമല്ല ലോകത്തിൽ തന്നെ വളരെ ബുദ്ധിമുട്ടേറിയ ഭാഷകളിൽ ഒന്നാണ് മലയാളം നമുക്കറിയാം ആ ഒരു ഭാഷ പഠിച്ച് പഠിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അറിയാമെന്നുള്ളത് വിദേശികളുടെ അടുത്താണെങ്കിലും നമുക്ക് ഒരു സന്തോഷത്തോടെ പറയാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ ഒരു മലയാളി ആണെന്നുള്ളത് അപ്പം എന്തുകൊണ്ടും മലയാള ഭാഷ പഠിച്ചത് വളരെ അധികം ഗുണം ഉള്ളൊരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്